മത്സ്യബന്ധനം വളരെ രസകരമാകുന്നത് അതിരാവിലെ പോകുന്നതും എന്ന് പറഞ്ഞാൽ മഴയില്ലാത്ത സമയവും കടലിനകത്തു പോകുമ്പോൾ മഴയില്ലാത്ത സമയവും ഇടി മിന്നല് കടൽക്ഷോഭം വരാത്ത സമയവുമാണ് മത്സ്യബന്ധനത്തിന് പറ്റിയ സമയം അതുപോലെത്തന്നെ ചാകര എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പോഴാണ് മത്സ്യം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുകയും അതുപോലെ മത്സ്യത്തിൻ്റെ ചീപ്പ് റേറ്റില് കൊടുക്കാന് പറ്റുകയും ചെയ്യുന്നത് അടുത്ത തലമുറ ഇതിലേക്ക് പോകണമെന്ന് പറയുന്നില്ല കാരണം ഇതിലേക്ക് പോവാനായിട്ട് ആഗ്രഹമുള്ള ചിലവര് എന്തായാലും കാണും അപ്പോള് അവരെന്തായാലും പോകേണ്ടതാണ് കാരണം ആരെങ്കിലും പോയി മീൻ പിടിച്ചില്ലെങ്കില് പിന്നെ മത്സ്യങ്ങളുടെ വാല്യൂ കുറയുകയും വാല്യൂ കൂടുകയും അതുപോലെത്തന്നെ മത്സ്യങ്ങൾ കിട്ടാതാവുകയും ചെയ്യും